കുറച്ചു വർഷങ്ങളായിട്ട് എന്നുവച്ചാൽ ഇപ്പം മഴക്കാ ലമൊക്കെ വരുമ്പോൾ ഭയങ്കര മഴയാണ് പെയ്യുന്നത് ഒരു വേനൽക്കാല മഴയ്ക്ക് ഒരു വേനൽക്കാലത്തെ വെള്ളമെല്ലാം ഭയങ്കര ചൂടും ആദ്യകാലങ്ങളിലൊക്കെ ഈ കഠിനമായ ചൂടും മഴയതൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാല് ഇപ്പം ഇപ്പോൾ ഈ വർഷങ്ങള്തോറും തോറും കഴിയുംതോറും വേനൽ കാലമൊക്കെ ഒരുപാട് ഭയങ്കര വരൾച്ചയും അതുപോലെ വെള്ളമില്ലായ്മയും ജല ജലത്തിന്റെ അഭാവവും ഒക്കെ കാണാറുണ്ട് അതുപോലെ മഴ മഴക്കാ ലമാണെങ്കിൽ പ്രളയമാണ് ഇപ്പോൾ കുടുതലും വരുന്നത് വർഷങ്ങളിൽ പിന്നെ ചില സമയങ്ങളിൽ മഴ ശീതകാലം വരുന്ന കാലഘട്ടത്തിലൊക്കെ ഉടൻ മഴ പെയ്യുന്നതായിട്ട് ഇപ്പോൾ കാണാറുണ്ട് അതുപോലെ മഴ പെയ്യേണ്ടസമയത്ത് മഴ കിട്ടാത്ത സമയായിട്ടും വരുന്നുണ്ട്